ഫോട്ടോഗ്രഫി എനിക്ക് ഇഷ്ടമാണ് അത് തൊഴിലായിട്ട് കൊണ്ടു നടക്കാനുള്ള അതുനുള്ള ഒരു അതിനെ കുറിച്ചുള്ള അറിവോ അല്ലെ അതിനുള്ള ഒരു കലാപരമായ കഴിവോ കലാപരമായ കുറച്ച് കഴിവു കൂടി വേണം ഫോട്ടോഗ്രഫിയിൽ നമുക്ക് പ്രാവിണ്യം തെളിയിക്കണമെങ്കിൽ അല്ലെ അതുമായിട്ട് മുന്നോട്ട് പോണെ അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രക്കുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അത് തൊഴിലായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നേ വേണമെങ്കിൽ ഒരൂ ജെസ്റ്റ് ഒരു രസത്തിനു വേണ്ടി മറ്റേ സിനിമക്കകത്ത് ഡയലോഗ് പറയുന്നതു പോലെ ജെസ്റ്റ് ഫോർ എ രസം എന്നു പറഞ്ഞൊന്ന് വേണമെങ്കിൽ ചെയ്യാം അത്രയെ ഉള്ളു നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു അല്ലാതെ സീരിയസായിട്ട് അതിൽ ഇപ്പം ഒരു നമ്മുടെ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടടക്കാനൊന്നും നമ്മൾക്ക് ഒരു അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിചാരം പിന്നെ ഇപ്പോഴത്തെ വിവാഹ ഫോട്ടോഗ്രഫി യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ട്രെൻഡുകളൊക്കെ ഒത്തിരി മാറി ഇപ്പം പിന്നെ വിവാഹത്തിന് തന്നെ പറയുന്നത് ഇൻ്റിമേറ്റ് വെഡിങ് എന്നെക്കെയല്ലെ ഇൻ്റിമേറ്റ് വെഡിങ്ങുള്ള കാലമല്ലേ ഇപ്പം ഏറ്റവും അടുത്തുള്ളവർ മാത്രം പങ്കെടുക്കുന്നതാണ് പിന്നെ പല സ്ഥലങ്ങളിൽ വെള്ളത്തിൽ വെച്ചും കപ്പലിൽ വെച്ചും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വച്ചൊക്കെ വെഡ്ഡിങ്ങ് നടക്കുന്നു ഫോട്ടോഗ്രാഫി അതിന് അനുസരിച്ചു മാറി എന്റെയൊക്കെ കല്യാണത്തിന്റെ സമയത്ത് ഒരു പോസ്റ്റ് വെഡിങ് വീഡിയോയും ഫോട്ടോസും ഉണ്ടായിരുന്നു അത് കല്യാണത്തിന് ശേഷം എവിടെ എങ്കിലുമൊക്കെ ഒരു മരം ചുറ്റി പ്രേമമൊക്കെ കാണിച്ചു കൊണ്ട് അല്ലെങ്കിൽ അതിന്റെയൊരു നാച്ചുറലായിട്ടുള്ള പ്ലെയിസുകളിലൊക്കെ പോയി കുറച്ച് ഫോട്ടോഗ്രഫിയും വിഡ്യോഗ്രഫിയുമൊക്കെ എടുക്കുന്ന ഒരു ഇതാർന്നുണ്ടായിരുന്ന ഏകദേശം ഒരു പത്ത് കൊല്ലത്തിന് മുൻപത്തെ കാര്യമാണ് പറയുന്നത് അതിന് ശേഷം പെട്ടെന്നാണ് ട്രെൻ്റ് മാറിയത് ഇപ്പം പ്രീവെഡിങ് ഫോട്ടോഷൂട്ടുകളുടെ കാലഘട്ടമാണ് പ്രീവെഡിങ്ങ് ഇല്ലെ പ്രീവെഡ്ഡിങ്ങെന്ന് പറഞ്ഞു കാണിക്കുന്ന ചില കാട്ടയങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നു പോലും തോന്നും അത്രയ്ക്ക് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ന്ന ആള്കാരുമുണ്ട് പ്രീവെഡിങ്ങിൽ കൂടുതലും അവർ ഉദ്ദേശിക്കുന്നത് ഈ ഞാൻ മുൻപ് പറഞ്ഞത് പോലെ സ്റ്റാറ്റസൊക്കെ ഇടുക ആ ഡേയ്റ്റ് അല്ലെങ്കിൽ മാരേജ് ഡേയ്റ്റൊക്കെ ആൾക്കാരെ ഓർമ്മിപ്പിക്കുക അതിനു വേണ്ടി ഇച്ചിരി കളർഫുള്ളായിട്ട് ഒരു വീഡ്യൊ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തുക അതാണുദ്ദേശ്ശിക്കുന്നത് പക്ഷെ ചിലതിനകത്ത് ഭയങ്കര വൾഗറായ ഒത്തിരി ഈ നമ്മുടെ ന്യൂ ജനറേഷൻ മാധ്യമങ്ങളിലൊക്കെ കാണാമല്ലോ അതിനെ കുറിച്ചൊക്കെ വരുന്ന കമൻ്റുകളും നമ്മൾ കാണുന്ന അറയ്ക്കുന്ന കമൻ്റുകളാണ് ചിലപ്പം അതിനെ കുറിച്ച് വരുന്നത് അതൊക്കെ കേട്ടാലും ചെല മനുഷ്യർക്കൊന്നും അതെനിക്ക് തോന്നുന്നത് കേൾക്കാൻ വേണ്ടിയ ഇതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു അത്രയ്ക്കൊന്നും നമ്മൾ തരന്താഴാൻ പാടില്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോഴത്തെ രീതികൾ പോകുന്നത് ഈ അടുത്തിടെ കണ്ട ഒരെണ്ണത്തിൽ ആണെങ്കിൽ വരനും വധുവിനും പറയാൻ പറ്റില്ല എങ്കിലും പറയുന്നു അതായത് വസ്ത്രങ്ങൾ അവിടെ ഇവിടെ ഒട്ടിച്ച് വച്ച പോലെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് അതിൻ്റെ അകത്ത് കമൻ്റ് കമൻ്റ് പറഞ്ഞത് വെറും പച്ച വ തെറികൾ തന്നെയാണ് അവ പുറത്ത് പറയാൻ പറ്റുന്ന വാക്കുകളല്ല അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല എങ്കിലും നമ്മൾ ബെഡ്റൂമിൽ കാണിക്കാനുള്ളതൊക്കെ ബെഡ്റൂമിൽ കാണിച്ചാൽ പോരെ എന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നത് ആ ഒരു രീതിയിലേക്കൊന്നും ഫോട്ടോഗ്രഫി അല്ലെ കല ഫോട്ടോഗ്രാഫി ഒരു കലയാണ് കലയാണെന്നു പറഞ്ഞു എന്ത് തോന്ന്യാസവും കാണിക്കാമെന്ന് നമ്മൾ വിചാരിക്കില്ല നമ്മൾ നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച രീതിയിൽ തന്നെ വേണം കാര്യങ്ങളെ കുറിച്ച് കാണാനും അതെങ്ങനെ വേണം അതിനെ കുറിച്ച് നമ്മൾ പ്രതികരിക്കാനും പിന്നെ ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം ഞാൻ എന്തെങ്കിലും കാണിക്കുന്നതിന് നിങ്ങൾക്ക് എന്തിന് കുഴപ്പം എന്ന് ചോദിക്കാം അങ്ങനെയല്ലല്ലോ നമ്മൾ കുറച്ച് സംസ്കാരം സംസ്കാരം സാംസ്കാരികമായിട്ട് ഉയർന്നത് അല്ലെ കുറച്ച് സംസ്കാരം ഉള്ള ഒരു ആൾക്കാരാണ് കേരളീയരെന്നാണ് നമ്മുടെ ഒരു ധാരണ പൊതുവെയുള്ള ധാരണ അത് തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് ഇപ്പം എനിക്ക് ആണേലും ഒരാൾ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെ ഞാൻ പ്രതികരിക്കും അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ ഞാൻ എന്റെ ചിലവിൽ ചെയ്യുന്നതിന് നിങ്ങൾ എന്നാൽ പിന്നെ എന്തിനാണ് എന്റെ ചെലവിൽ ചെയ്യുന്നത് ഞാൻ മാത്രം കണ്ടാൽ പോരെ മട്ക്കായിയുള്ളവരെ കാണി ക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് അതൊന്നും ശരിയല്ല ശരിയല്ലെന്നു പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയല്ലെന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ അത്യാവശത്തിന് വേണം ആവശ്യത്തിനുള്ള ഫുൾ ഡ്രസ്സുകളുമൊക്കെ ഇട്ട് ഇച്ചിരി രസകരമായിട്ട് അല്ലെ ഒരു പാട്ടിന്റെ താളത്തിനൊത്ത് ഈ തുള്ളുകയൊക്കെ ചെയ്യുന്നത് ഒരു രസമുള്ള കാര്യമാണ് അല്ലാതെ വൾഗറായിട്ടുള്ള ഒരു സീനിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ഇതൊക്കെ ഒരൂ ആവശ്യവുമില്ലാത്ത കാര്യമല്ലേ എന്ന് ഈ ഒരു സംഭവം തന്നെ അങ്ങ് നിന്ന് പോവും ശരിക്കും പറഞ്ഞാൽ എത്ര ഫോട്ടോഗ്രാഫർമാരും വീഡ്യോഗ്രാഫർമാരും ഇതുകൊണ്ട് ജീവിക്കുന്നത് ഈ കല്യാണം അല്ലെങ്കിൽ ഇതു പോലത്തെ ഫങ്ഷന്റെ ഇതുകൊണ്ട് അപ്പം അത് അനുസരിച്ച് കാലത്തിനൊത്ത് കോലം മാറുക പറയും എങ്കിലും ഒരു പരിധി വരെയൊക്കെ നമ്മൾ നമ്മളുടെ സംസ്കാരം നില നിർത്തിക്കൊണ്ടുള്ള രീതിയിലേക്ക് ഇത്തരം ഷൂ ഫോട്ടോഷൂട്ടുകളിലേക്ക് പോകുകയുള്ളു എന്നു തന്നെയാണ് എന്റെ അഭിപ്രായം